ഹലോ ഞാൻ നിങ്ങളുടെ ഓൺലൈൻ ആപ്പിൽ നിന്ന് രാവിലെ പത്തു മണിക്കൊരു ബിരിയാണി ഓർഡർ ചെയ്തതാണ് നിങ്ങൾ പന്ത്രണ്ടരയ്ക്ക് വീട്ടിലെത്തിക്കാമെന്നു പറഞ്ഞു ഇപ്പോൾ സമയം ഒരുമണി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വൈകിയത് കസ്റ്റമർ പറഞ്ഞ സമയത്തു കൊണ്ടുവരേണ്ടതല്ലേ ഇതിനാണോ നിങ്ങൾ ഞങ്ങളുടെ കൈയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് ഇതിനാണോ ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരുന്നത് വൈകുമെങ്കിൽ അത് നേരത്തെ അറിയിക്കേണ്ടതല്ലേ എന്താണ് കാരണം പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ഡെലിവറി ചെയ്യാത്തത് ഒരു ബിരിയാണിയല്ലേ ഓർഡർ ചെയ്തത് അത് അപ്പോൾത്തന്നെ ഡെലിവറി ടൈം അതിൽ കാണിക്കേണ്ടതല്ലേ വൈകുമെങ്കിൽ ട്രാഫിക്കാണോ അതോ എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് അത് നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കേണ്ടതല്ലേ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത സാധനമല്ലേ ഇപ്പോൾ സമയം ഒന്നര കഴിഞ്ഞിരിക്കുന്നു ഇനിയും വൈകുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഓർഡർ റദ്ദാക്കുന്നതാണ് നിങ്ങളുടെ ഡെലിവറി ചാർജ് കട്ട് ചെയ്യുന്നതാണ് ഓർഡർ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു